എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിലെ നെയ്ത്തുണ്ടായിരുന്നു എൻ്റെ അമ്മ നെയ്തിട്ടുണ്ട് അത് പിന്നെ അത് കാലക്രമേണ അത് നിലച്ചു വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ തുന്നാറുണ്ടായിരുന്നു മുണ്ട് നേരിയത് എന്നിവ തുന്നി തുന്നിയിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ പ്രദേശത്ത് ഒന്നുരണ്ടിടത്ത് തുന്നൽ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കും തുന്നൽ ഉണ്ട് നെയ്ത്ത് തുന്നൽ ഉണ്ട് മുണ്ട് നേരിയത് എന്നിവ തുന്നി കൊടുക്കാറുണ്ട് അത് അറിയാം പിന്നെ ശ്രമിച്ചിട്ടുണ്ട്